കൈകൊണ്ടുണ്ടാക്കിയ കാർഡ് എൻ്റെ മകന് ഞാൻ സ്കൂളിലൊക്കെ ആണെങ്കിലും പോകുമ്പോഴത്തേക്കും അവിടെ സ്കൂളിൽ നിന്ന് ഓരോന്ന് ഇതുണ്ടാക്കി കൊണ്ടുവരാൻ പറയും അന്നേരം അപ്പം ഞാൻ പല ഇതിൽ തുണിയിലൊക്കെ ആണെങ്കിലും ഓരോ പടമൊക്കെ വരച്ച് അതിലൊക്കെ പൂവൊക്കെ തുന്നിപ്പിടിപ്പിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ കൊടുത്തു വിടും ഒരു ദിവസം അങ്ങനെ കൊടുത്ത് വിട്ടപ്പോൾ നിങ്ങൾ ടീച്ചറ് ചോദിച്ചു ഇതാര് ഉണ്ടാക്കിയതാണെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അമ്മയുണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി ആ ഉണ്ടാക്കി പിന്നെ കൊടുത്ത് വിട്ടിട്ടുണ്ട് പിന്നെ അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു ഞാനതുണ്ടാക്കി കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ആ എൻ്റെ അമ്മ അമ്മയ്ക്കും അമ്മയ്ക്കും അതുപോലെ എൻ്റെ അച്ചാച്ചനും അവരുടെ വെഡ്ഡിങ്ങ് ആനുവേഴ്സറിക്ക് ഞങ്ങളിതു പോലെ തന്നെ ഒരു ഇതിപ്പോൾ ചിത്രം ഒരു ഇത് വരച്ചും കാർഡൊണ്ടാക്കി അതേലവരുടെ പേരുമൊക്കെ എഴുതി തുന്നിപ്പിടിപ്പിച്ച് അതെല്ലാം ഞാൻ കൊടുത്തു അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു കൊടുത്തത് അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ പിന്നെ ഇതുപോലെ തന്നെ ഒരു കാർഡ് ഒരു കാർഡ് ഞാനുണ്ടാക്കി അതേല് തുണികൊണ്ട് പിന്നെ നൂലുകൊണ്ട് നന്നായിട്ട് അവിടെ ഇത് പേരുമൊക്കെ എഴുതി എല്ലാം നന്നാക്കി അത് കൊടുത്തു അവർക്കും അത് എല്ലാം കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ